ഇപ്പം കൂടുതൽ ആൾക്കാരും ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം കൂടുതൽ ആൾക്കാർ കുറേ പേർ ഗസ്റ്റുകളായിട്ടു വന്നു പക്ഷേ നമ്മളെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ശീലിച്ചിട്ടുള്ളു കാരണം അത്രപേർക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ശീലിക്കാൻ നമ്മൾക്കറിയില്ല അതായത് അതായത് നമുക്ക് ചിലപ്പം അറിഞ്ഞുവെന്ന് വരില്ല കുറേ പേർക്കൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് വലിയ ശീലം ഉണ്ടാവില്ല അപ്പം കുറേ പേർ അതു നമ്മളെ വീട്ടിലിപ്പോൾ രണ്ടോ മൂന്നോ പേരേ ഉണ്ടാവുള്ളൂ പക്ഷേ കുറേ പേർ വരുമ്പം പത്തും പതിനഞ്ചും പേർ വരുമ്പം നമുക്ക് എത്ര അളവിന് എല്ലാം ഉണ്ടാക്കാൻ അറിയെങ്കിലും എത്ര അളവിൽ അതുണ്ടാക്കണം എന്ന് നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അതു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും വരുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പം നമ്മളിപ്പം കുറേ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അതിന് ഉപ്പ് പാകമായിരിക്കുമോ എരിവ് പാകമായിരിക്കുമോ അരി എത്ര ഇട്ടാൽ എണ്ണ ഇങ്ങനെ എത്ര ഉണ്ടാവും ആ ഒരു ഐഡിയ ഒന്നും നമുക്ക് ഉണ്ടാവില്ല കാരണം നമ്മളങ്ങനെ ശീലിച്ചിട്ടുണ്ടാവില്ലല്ലോ അതേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ പിന്നെ വേഗം കുറേ പേര് വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും കാരണം മറ്റേ പച്ചക്കറി വയ്ക്കുമ്പം നമ്മൾ കുറേ അത് വയ്ക്കേണ്ടി വരും ഈ നെയ്യ്ച്ചോറും ചിക്കൻ കറിയും ആകുമ്പം നമുക്ക് കുറേ വയ്ക്കേണ്ടി വരില്ല കുറച്ച് വച്ചാൽ മതിയായിരിക്കും കുറേ വയ്ക്കേണ്ടി വരില്ല എന്നല്ല കുറേ കറികൾ വയ്ക്കേണ്ടി വരില്ല പച്ചക്കറി ആകുമ്പം നമ്മൾ എല്ലാം സാമ്പാറിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല ഉപ്പേരി വേണ്ടിവരും പപ്പടം വേണ്ടിവരും അച്ചാർ വേണ്ടിവരും പച്ചടി വേണ്ടിവരും അങ്ങനെ എല്ലാം കൊടുക്കണം ഇത് ആകുമ്പം നെയ്യ്ച്ചോറും ചിക്കൻ കറിയും ചള്ളാസ് ആയിട്ട് ഉണ്ടെങ്കിൽ ഭക്ഷണം റെഡി